കൂടുതലായും ബൈക്കുകളുടെയും വീഡിയോകളും പോസ്റ്റുകളുമാണ് ചെയ്യാറുള്ളത് ഇൻസ്റ്റാഗ്രാം വഴി ബൈക്കുകളുടെ ഫോട്ടോയും വീഡിയോയും നമ്മുടേതായ സ്വന്തം ഫോട്ടോയും മറ്റുമാണ് ചെയ്യുന്നത് പിന്നെ ബൈക്കുകളുടെ ഫോട്ടോഗ്രാഫികളും നമ്മുടെ സ്വന്തം വണ്ടിയുടെ ഫോട്ടോയും ബൈക്കുകളുടെ വീഡിയോസുമാണ് കൂടുതലായും ഇൻസ്റ്റയിൽ ചെയ്യാനാണാഗ്രഹിച്ചിട്ടുള്ളത് ഫോട്ടോകളും മറ്റ് വീഡിയോസും ഇൻസ്റ്റയിൽ ഇതിനു വേണ്ടി ചെയ്യാറുണ്ട് നല്ല നല്ല വ്യൂസിൻ്റെ ഫോട്ടോകളും ബൈക്ക് റെയിൽസ് നമ്മുടെ സ്വന്തം വണ്ടിയുടെ ഫോട്ടോ പിന്നെ ബൈക്കിൻ്റെ ഫോട്ടോഗ്രാഫികളും പിന്നെ ബൈക്കിൻ്റെ വീഡിയോസും സാധാരണയായിട്ട് ചേർന്നായിട്ടാണ് ചെയ്യാറുള്ളത് ഇൻസ്റ്റഗ്രാം വഴി റിയൽസ് ചെയ്യാനും റീൽസ് ചെയ്യാനും മറ്റുമാണ് ചെയ്യുന്നത് പിന്നെ ഫോൺ വഴികളിൽ ഫോൺ വഴികളിൽ ബൈക്കിൻ്റെ കണ്ടൻറ്റുകളും ബൈക്കിൻ്റെ ഫോട്ടോകളും വീഡിയോസുമാണ് കൂടുതലും ചെയ്യുന്നത് ഇൻസ്റ്റയിൽ മറ്റും മറ്റു വല്ലതിലേക്കും എത്തിക്കാനും ഇതു വഴി ഉപകാരമാകാറുണ്ട് കൂടുതൽ ഫോട്ടോസും വീഡിയോസുമാണ് ബൈക്കിൻ്റെ ചെയ്യുന്നത് പിന്നീട് അതു വഴി മറ്റു വല്ലറ്റിലേക്കും ആ ഫോട്ടോഗ്രാഫുകൾ എത്തിക്കാറുമുണ്ട് കൂടുതലായും ബൈക്കിൻ്റെ ഫോട്ടോസ് തന്നെയാണെടുക്കാറുള്ളതും വീഡിയോകളുമാണ് ചെയ്യാറുള്ളത് പ്രകൃതികരമായി നല്ല വ്യൂ പോയിൻ്റുകളുള്ളിടത്ത് ഫോട്ടോകളും മറ്റും ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെടാറുണ്ട് നല്ല നല്ല ഫോട്ടോസും വീഡിയോസും മറ്റും ഇൻസ്റ്റ വഴി പോസ്റ്റ് ചെയ്യാറുണ്ട് എന്നാൽ എന്നാൽ പോലും കൂടുതലും ഇൻസ്റ്റഗ്രാം വഴി സ്വന്തം വണ്ടിയുടെ ഫോട്ടോസും വീഡിയോസുമാണ് ചെയ്യുന്നത് ഇൻസ്റ്റയിലെ കൂടുതലും സ്വന്തം ഫോട്ടോയാണ് പോസ്റ്റ് ചെയ്യാറുള്ളത് അതു തന്നെയാണ് കൂടുതൽ താൽപര്യവും ചെയ്യാനും നമ്മുടെ സ്വന്തം കണ്ടൻ്റുകളും വണ്ടിയുടെ ഫോട്ടോസും മറ്റും പോസ്റ്റ് ചെയ്യാനും എല്ലാം സാധിക്കുന്നുണ്ട് പിന്നീടതു വഴി മറ്റു പലരിലേക്കുമതെത്തിക്കാനും മറ്റുള്ള കണ്ടൻ്റ് വഴി വഴി കണ്ടത് നമ്മുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട് നല്ല നല്ല ഫോട്ടോസും മറ്റുമാണ് എടുത്തു ചെയ്യുന്നത്